എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ട് ഇപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോൺ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത് കുറച്ച് യൂസ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബാറ്ററിയിലത്തെയൊക്കെ ഭയങ്കര പ്രശ്നമായി കാരണം നമുക്ക് ചാർജ് നിൽക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ചാർജ് കയറാൻ ഒക്കെ ഭയങ്കര സമയമായിരുന്നു അതായത് നമുക്ക് ഇപ്പോൾ ചാർജ് കയറാൻ തന്നെ ഓൾമോസ്റ്റ് നല്ല ടൈം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് അതിലും ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ചാർജ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് പിന്നെന്താ പറയുക ഇതിൽ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ സ്റ്റോറേജൊക്കെ ഭയങ്കര വിഷയമായി പിന്നെ ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് എടുത്ത ടൈമിൽ നല്ല ഇത് അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ട് മോശമായി തുടങ്ങിയത് അപ്പോൾ ഇതെനിക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല പിന്നെ എന്താ പറയുക ഇതിന് എന്താ പറയുക ഒറ്റത്തവണ നിലത്ത് പോയപ്പോൾ തന്നെ എന്താ പറയുക ഡിസ്പ്ലേക്കൊക്കെ ഭയങ്കര പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് എന്താ പറയുക ക്രാക്കായി അപ്പോൾ എന്താ പറയുക മെല്ലെ ഒന്ന് താഴെ ബെഡിൻ്റെ അവിടെ നിന്ന് തന്നെ താഴെ വീഴുമ്പോൾ തന്നെ എന്താ പറയുക കട്ടിലിൽ നിന്ന് താഴെ പോയപ്പോൾ തന്നെ അതിന് ഭയങ്കരമായിട്ട് പൊട്ടും കാര്യങ്ങളും ഒക്കെയായി ഡിസ്പ്ലേ ഫുൾ ഡാമേജ് ആയി കാരണം അത്രയ്ക്ക് ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഇതിന് കുറവായിരുന്നു ആദ്യം പറഞ്ഞത് ഇതിന് നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഫോണാണ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക ക്യാഷിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് എനിക്കത് തോന്നിയില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു അത്